ഞാന് ഒര് വർഷത്തിൽ ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ച് ട്രാവലിംഗ് തീരുമാനിച്ച് വെക്കും ഒര് പത്ത് ഇരുപത് ട്രാവലിംഗ് ഈ ഒര് പതിനഞ്ച് ട്രാവലിംഗ് നടത്തും കാരണന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നേരിടും ചിലപ്പം പൈസ ഉണ്ടാവത്തില്ല ചിലപ്പം എന്തേലും രോഗം ആയേക്കും ചിലപ്പം വണ്ടി അല്ലെങ്കിൽ ക്ലൈമറ്റ് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകള് നമുക്ക് നേരിടും ട്രാവലിംഗിൽ ഇടയ്ക്ക് ചില സമയത്ത് പറഞ്ഞാൽ ഒറ്റക്ക് പോകാൻ ഇരിക്കുമ്പോഴായിരിക്കും ഏതേലും കൂട്ടുകാരൊക്കെ വരുന്നത് അതുകൊണ്ട് വർഷത്തിൽ അവരെ ഒക്കെ കൂട്ടി ഒര് ട്രാവലിംഗ് ഇല്ലേൽ ഫാമിലിയെ കൂട്ടി വർഷത്തില് രണ്ട് പ്രാവശ്യം ട്രാവലിംഗൊക്കെ നടത്താറുണ്ട് കൂടുതലും ഇന്ത്യ കേരളത്തിനുള്ളിൽ തന്നെ അല്ലേൽ ഇന്ത്യക്ക് ഉള്ള് തന്നെ ഒക്കെ ആയിട്ടായിരിക്കും ട്രാവലിംഗ് കാരണം നമ്മള് കാണാൻ ഒത്തിരി ഒത്തിരി സ്ഥലങ്ങളുണ്ട് അപ്പം തടസ്സങ്ങളായിട്ട് നമുക്ക് ഒരുപാട് പ്രതിസന്ധികള് ചിലപ്പോൾ പോകാനിരിക്കുമ്പോഴായിരിക്കും നമുക്ക് എന്തേലുമൊരു ജോലിയുടെ ആവശ്യം ആയിട്ട് എന്തേലും എമർജൻസി കോള് വരുകയും നമുക്ക് യാത്ര ഒക്കെ പോവാതിരിക്കാനൊക്കെ ഉള്ള ഇത് ഉണ്ടാവുക ചെയ്യും പിന്നെ അതുപോലെ തന്നെയാണ് യാ വർഷത്തില് നമുക്ക് ട്രാവലിംഗൊക്കെ നടത്തുമ്പഴാണ് നമ്മുടെ ശരീരത്തിനും മനസ്സിനൊക്കെ ഒരു ഉന്മേഷം എനർജി ഒക്കെ കിട്ടുകയുള്ളു ഇപ്പോൾ നമ്മള് ട്രാവലിംഗ് നടത്തിയിട്ട് വരുമ്പോൾ നമ്മള് ഫ്രണ്ട്സിനോട് പറയും എടാ അവിടെ കാണാൻ നല്ല സൂപ്പറാണ് ഇവടെ കാണാൻ നല്ല രസ്സമാണെന്നൊക്കെ പറയുമ്പൊൾ അവർക്കും പോകാൻ തോന്നും കൂട്ടത്തിൽ നമ്മളെ കൊണ്ട് പോകാനൊക്കെ ആയിട്ട് അവർക്ക് തോന്നുകയൊക്കെ ചെയ്യും അതുപോലെ തന്നെ ട്രാവലിംഗില് നമുക്ക് ഒരുപാട് കാര്യങ്ങള് പഠിക്കാനും ചിന്തിക്കാനും ഉള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ട്രാവലിംഗ് ഓരോ സ്ഥലങ്ങള് ചെല്ലുമ്പോൾ വ്യത്യസ്ഥമായ രീതിയിലുള്ള അവരുടെ ഭക്ഷണ രീതികള് അവരുടെ താമസങ്ങള് അവരുടെ ജോലി വ്യവസായ മേഖലകൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നും ഇത് നമ്മുടെ നാട്ടിലും കൊണ്ട് വരണമല്ലൊ നമ്മുടെ നാട്ടിലും ചെയ്യണമല്ലൊ എന്നൊക്കെ ഉള്ളൊരു കാഴ്ചപ്പാട് നമുക്കും ഉണ്ടാകും അപ്പം ഓരോ സ്ഥലങ്ങളില് നമുക്ക് ചില സ്ഥലങ്ങളിൽ നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് എറണാകുളം ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് തിരിച്ച് വരുമ്പോൾ എന്തേലും ഒര് തടസ്സങ്ങളുണ്ടാവും അപ്പോൾ തടസ്സങ്ങള് നിൽക്കുമ്പോൾ ഹർത്താലൊക്കെ ആണെങ്കിൽ അവർക്ക് ഇന്ന് ഇടുക്കി ജില്ലയിൽ ഹർത്താലല്ലേ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണ്ട എന്നാൽ നമുക്ക് ഒര് ദിവസം കൂടി കറങ്ങാൻ നോക്കിയവർ നമ്മൾ എറണാകുളത്ത് പിന്നെയും കാണാനായിട്ടുള്ള ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് അവിടെ ഒക്കെ പോയി നമ്മൾ പിന്നെയും കറങ്ങി കറങ്ങി നമ്മള് ഇങ്ങനെ വർഷത്തില് എത്ര ഒന്നല്ല ഒരുപാട് തവണയൊക്കെ നമ്മള് ആ പോയ സ്ഥലത്ത് പിന്നെയും പിന്നെയും പോകാനായിട്ട് നമ്മുടെ മനസ്സ് അനുവദിക്കും അപ്പോൾ നമുക്ക് പിന്നെ അവിടെയുള്ള ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരു ഒരു പരിചയക്കാരൻ ഒര് കട ചായക്കടക്കാരനെ കണ്ട് പരിചയപ്പെട്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓർക്കും ആ ഇനി വരുമ്പം നമുക്ക് ഇവിടെ തന്നെ ചായ കുടിക്കാൻ കയറാനൊക്കെ എപ്പഴും അപ്പം തടസ്സങ്ങൾ ചിലപ്പോൾ കൂട്ടത്തിൽ വരുന്നവൻ പറയും എടാ നമുക്ക് ഇന്ന് പോകണ്ട രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ട് പോകാം അപ്പോൾ നമുക്ക് എന്തേലും എമർജൻസി കാര്യം നിൽക്കുവാണെന്ന് ഉണ്ടെങ്കിൽ അങ്ങനെ ഉള്ള തടസം കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാടൊക്കെ ഉണ്ടാവുക ഒക്കെ ചെയ്യും